വെള്ളം നമുക്ക് നമ്മളിപ്പോൾ എണീറ്റ് വരുന്നത് തൊട്ട് നമ്മളിപ്പോൾ അവസാനം കിടക്കുന്നത് വരെ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം എണീറ്റ് വരുന്ന ടൈമിൽ തന്നെ നമ്മൾ പല്ല് തേക്കാനും മുഖം കഴുകാനും ബാത് റൂം പോകാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വെള്ളം യൂസ് ചെയ്യാറുണ്ട് അപ്പം വെള്ളം നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് ഉള്ളത് കാരണം വെള്ളമല്ലാണ്ട് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റില്ല കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുടിക്കുന്നത് നമ്മൾ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുക കുടിക്കുന്നതിനാണ് നമ്മൾ മെയിനായിട്ടുള്ളത് നമ്മുടെ വെള്ളം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും വെള്ളം അടങ്ങിയിരിക്കണം കാരണം വെള്ളമില്ലാണ്ട് നമുക്ക് ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ വെള്ളം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോ അവയവങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ് നമ്മളിപ്പോൾ വെള്ളം കുടിക്കുക ഇപ്പോൾ നമ്മളൊരു ദിവസം വെള്ളം കുടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പും കാര്യങ്ങളൊക്കെയുണ്ടാകും മൂത്രത്തിൽ മൂത്രം വരാണ്ടിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അതൊക്കെ നമ്മൾ വെള്ളം ഇല്ലാത്തതു കൊണ്ടുള്ളൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ കുളിക്കുന്നതും വെള്ളത്തിലാണ് അപ്പം നമ്മളൊരു രണ്ടോ മൂന്നോ ദിവസം കുളിക്കാണ്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമുക്ക് ഡെയിലി കുളിക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല അതൊക്കെയാണ് മെയിനായിട്ട് വെള്ളം കൊണ്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്